ഹലോ ആ ആ എന്താ എന്ത് എന്ത് വേണം ചേട്ടാ ആ ആ ആ അതേത് സൈസ് അരിയാണ് വേണ്ടത് ബിരിയാണി അരിയാണോ ആവശ്യം ആ ആ ബിരിയാണി ആ ആ ബസ് ബസുമതി ഉണ്ട് കൈമ എന്നൊരു പുതിയ ഐറ്റം ഉണ്ട് ആ ആ അല്ലെങ്കിൽ പിന്നെ സാധാരണ ബിരിയാണി അരിയും ഉണ്ട് അതെ അതെ അതെ ചെറിയ ഒത്തിരി വ്യത്യാസല്ല്യ വ്യത്യാസമുണ്ട് വില വ്യത്യസം വളരെ ഉണ്ട് മറ്റേ ഇത് ചെറിയ അരി അറുപത് കിലോയ്ക്ക് അൻപത് രൂപക്ക് കിട്ടും മറ്റേ നൂറ്റി ഇരുപത്തഞ്ച് രുപയാവും അ ഉണ്ടുണ്ട് അതൊണ്ട് അത് ഈ ഹോട്ടലുകാർക്ക് ഒക്കേ നമുക്കും സാധാരണ ഇത് എന്താവശ്യത്തിനാണ് ചേട്ടന് എന്ത് എന്ത് ആവശ്യത്തിനാണ് ആ അതിപ്പം ആ അതെ ആ ഇത്രയൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും വാങ്ങിക്കൊടുന്നമാരി ബസുമതി അരിയായിരിക്കും നല്ലത് ബസുമതി ആയിരിക്കും നല്ലത് നല്ലത് അതിപ്പോൾ പെരുന്നാൾ പോലുള്ള വലിയ വലിയ വെ കാര്യങ്ങൾക്കിപ്പോൾ ഇത്രേം പേർക്ക് കൊടുക്കാനുള്ള ആ വില കുറഞ്ഞ ചെറിയ അരി അറുപത് അറുപത് രൂപയുടെ അരിയായാലും മതിയാവും ആ ഉണ്ടുണ്ടുണ്ട് ഉണ്ട് ഉണ്ട് ആ ആ

ആ കുതിരയോടി ഉണ്ട് ആ കുതിരയോടി ഉണ്ട് നല്ല മട്ട പാലക്കാടൻ മട്ടയുണ്ട് നല്ല ചെമ്പാവരി ഉണ്ട് ചെറുമണി അരി ഉണ്ട് ആ ആ പച്ചരിയുണ്ട് അതിലേത് വേണമെന്ന് അത് പറഞ്ഞോളൂ കല്യാണമാണ് ആവശ്യം നമുക്ക് പാല അ ഇപ്പം ഇപ്പോൾ കിലോയ്ക്ക് നാൽപ്പത്തെട്ട് രൂപ ആ കുതിരയോടീ നാൽപ്പത്തി രണ്ടിന് തരാം നാൽപ്പത്തി രണ്ട് കുറച്ച് കൂടുതലാണെങ്കിൽ മൊത്തം ചാക്ക് കൂടെ ആണെങ്കിൽ നാൽപ്പത്തി രണ്ടിന് തരാം ആ ഇപ്പം വളരെ കുറച്ചിട്ടുണ്ട് ആ ആ ചെമ്പാവരി ചെമ്പാവരി നല്ല കുത്തരി അ നല്ല ചെമ്പാവരി ആണെങ്കിൽ ഏതാണ്ട് അൻപത് രൂപക്കടുത്താവും ശകലംകൂടി കുറച്ചൊക്കെ തരാം കാരണം വേണമെങ്കിൽ ആ ആ അത് അത് കാര്യം ചെയ്യൊന്ന് ഓ ഓർഡറ് ആയിട്ട് വാ ഓർഡർ കുറച്ച് തരാം കേട്ടോ ശരി അ ശരി എന്ന ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ